കേരളത്തിലെ വിനോദ വ്യവസായത്തെ സാമൂഹിക മാധ്യമങ്ങളും ഓൺലൈൻ പ്ളാറ്റ്ഫോമുകളൊക്കെ ഒരുപാട് പങ്കു വഹിക്കുന്നുണ്ട് ഈ കലാകാരന്മാര് പാശ്ചാത്തല വിവരങ്ങൾ മുതലായവ അറിയിക്കുന്നതിനും വിനോദത്തിനുമായി വിനോദത്തിന് സോഷ്യൽ മീഡിയ സിനിമകൾ അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് സിനിമകളാണെ തന്നെ വിനോദത്തിന് അതായത് നമ്മള് എവിടെയെങ്കിലും ട്രിപ്പോ എന്തെങ്കിലു കറങ്ങാനൊക്കെ പോകുകയാണെങ്കിലോ നമ്മള് സിനിമക്കൊക്കെ കൂടുതലും പോവാറുണ്ട് സിനിമകളെന്ന് പറഞ്ഞാൽ പുതിയ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ നമ്മള് ആ സിനിമ കാണാനൊക്കെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് നമ്മള് പോകാറുണ്ട് അങ്ങനെ കുടുംബങ്ങള് കാണുന്ന സിനിമകള് ഒക്കെയാണെങ്കില് കുടുംബത്തോട് കൂടി പോകാറൊക്കെയുണ്ട് വിനോദത്തിന് പോകുന്ന സമയത്തല്ലാതെ തന്നെ എല്ലാവരും സിനിമയൊക്കെ കാണാൻ പോകുന്നുണ്ട് ഒരു വിനോദത്തിന് വേണ്ടിയാണ് ഈ സിനിമയൊക്കേ കാണുന്നത് പിന്നെ സോഷ്യൽ മീഡിയ ടി വി കാണും മൊബൈൽ ഫോണ് യൂസ് ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ചെയ്യുന്നവരൊക്കെയുണ്ട് അതൊക്കെ ഒരു പിന്നെ വിനോദത്തിന് വേണ്ടിയിട്ടാണ് അവര് ചെയ്യുന്നത്